ഹലോ ഇത് മറ്റേ ഹോട്ടലിലെ ആളല്ലേ

ആ ശരി ശരി ഞാനെന്നാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊരു ഫങ്ഷനുണ്ടായിരുന്നു പൂജ ഉണ്ടായിരുന്നു അപ്പവേ ഒരു ഇരുപതാൾക്കാരുടെ ഇത് രാവിലത്തെ ഒരു ബ്രേക്ക് ഫാസ്റ്റ് വേണമായിരുന്നു ചായയോടൊപ്പം തിന്നാനുള്ള അപ്പം നമുക്കിങ്ങനെ മസ് ആ മസാല ദോശ ഉണ്ടാവുവോ ഇത്ര ആൾക്ക് ഒരു ഇരുപതാൾക്കുള്ളത് വേണ്ടി വരും അതല്ലാണ്ട് വേറെന്തൊക്കെയാണ് കിട്ടുക അതേയല്ലേ കൈ കുടിക്കാനെന്തൊക്കെ ഉണ്ടാവും ചായയല്ലാണ്ട് നമുക്ക് കുറച്ചാൾക്കാർക്ക് ചായ വേണ്ടി വരും കുറച്ചാൾക്കാർക്ക് കാപ്പി വേണ്ടി വരും ഇതെങ്ങനെയാണ് നിങ്ങൾ കൊണ്ട് വന്ന് തരുവോ നമുക്ക് ബ്രേക്ക് ഫാസ്റ്റ് അതായത് കൊണ്ട് തരുവല്ലേ കാരണോന്ന് വെച്ചാൽ ആ ആ അതന്നെ ഏകദേശം എനിക്ക് രാവിലെ വേണ്ടി വരും തോന്നെ ഏഴ് മണിക്ക് മുൻപെ വേണ്ടി വരും കാരണം നമ്മളവിടെ രാവിലെ പൂജയ്ക്കിരിക്കുന്നതിനേക്കാളും മുന്നേ അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇരിക്കാൻ ആ അപ്പം അതിന് രാവിലെ എത്തിക്കേണ്ടി വരും അപ്പോൾ ഇത് ഞാൻ അതേല്ലേ നിങ്ങൾ രാവിലെ തുറക്കുന്നുണ്ടോ രാവിലെ തുറക്കുന്നുണ്ടോ അപ്പോൾ തുറക്കുന്നുണ്ട് ആ അപ്പോൾ നിങ്ങൾ രാവിലെയൊന്ന് എത്തിക്കണം ഞാൻ നിങ്ങളെ അഡ്രെസ്സ് നിങ്ങൾക്ക് ഞാൻ അയച്ച് തരാം അപ്പോൾ നമുക്ക് ഇരുപതാൾക്കുള്ള മസാല ദോശയും പിന്നതിൻ്റെ കൂടെ വടേം ഇരുന്നോട്ട് ഇഡ്ഡലി വേണ്ട വട മതി മസാല ദോശ വട പിന്നെ ഷീറ കിട്ടോ ഷീറ ഉണ്ടോ ആ ചട് ചട്നി ഇല്ലേ ചട്നി മതി ചട്നി വടക്കുള്ള ചട്നി മതി പിന്നെ ചായയും മാൾട്ടും മതി അപ്പം ഇത്രേം കാര്യങ്ങൾ വേണം നമുക്ക് അത് നിങ്ങളൊന്ന് ആ ആ നമുക്ക് ഒരു ആറര ഏഴ് മണീടെ ഉള്ളിൽ നിങ്ങൾ എത്തിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കുടിച്ചിട്ട് പിന്നെ ഫ്രഷായിട്ട് ആ ഓക്കെ ഓക്കെ ഓക്കെ മസാല ദോശക്കെങ്ങനാണ് റേറ്റൊന്നിന് മുപ്പത് രൂപയുണ്ടല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങളത് കുറയണം എടുക്കുമ്പോൾ ആ കുറെ എടുക്കുമ്പോൾ കുറക്കുവല്ലോ ആ കൊറ് ആ ആ ശരി ശരി അപ്പോൾ ഏതായാലും ഞാൻ നിങ്ങൾക്ക് ആ ശരി അപ്പോൾ ഏതായാലും ഇരുപതാക്കുള്ളത് നിങ്ങൾ പായ്ക്ക് ചെയ്ത് രാവിലൊരു ആറര ഏഴ് മണീടെയുള്ളിൽ ഇരുപതാക്കുള്ളത് ഇവിടെ എത്തിക്കുന്ന പോലെ ചെയ്യണം ആ ശരി അപ്പം ഞാൻ നിങ്ങൾക്ക് അഡ്രസ്സ് അയച്ച് തരാം ആ അഡ്രസ്സ് അയച്ച് തരാം ക്യാഷ് ഞാൻ അവർ കൊൺ ആ ഓക്കെ ഓക്കെ ആ വരുന്നയാളുടെ കയ്യിൽ ക്യാഷ് കൊടുത്ത് വിടാം എത്രയാണെന്ന് റ്റോട്ടൽ എമൗണ്ട് അവരോട് പറഞ്ഞാൽ മതി അവരുടെ കയ്യിൽ ഞാൻ ആ ഒന്നിച്ച് കൊടുത്ത് ആ ഓക്കെ ഓക്കെ ഒന്നിച്ച് തന്നെ ഇടാം ക്യാഷൊന്നിച്ച് അവരെ കയ്യിൽ കൊടുത്ത് വിടാം പിന്നെന്നു വെച്ചാൽ നിങ്ങളേത് ഭക്ഷണോല്ലാം നല്ല നല്ല ഉണ്ടാവോല്ലാ ടേസ്റ്റ് കാണുവല്ലോ നല്ലത് തന്നല്ലേ ഓക്കെ ഓക്കെ അപ്പം പ്രശ്നമില്ല നമ്മൾ അതന്നെ അതന്നെ ആ അതെ അതെ അതെ അത്കൊണ്ട് ആദ്യത്തെയൊരു ഇരുപതാൾ നോക്ക് വേറെന്തെങ്കിലും പറയാലോ എന്തുണ്ടെങ്കിലും ധൈര്യത്തിൽ പറയാലോ നിങ്ങളോട് ഓക്കെ ശരി അപ്പം ഏതായാലും ഞാൻ മറ്റന്നാളത്തേക്കുള്ളത് കൊടുത്തയച്ചാൽ മതി ഓക്കെ ശരി അപ്പം